ആ ഹലോ ആ അതെ രേഷ്മ മാം ആണ് പറയൂ

ഷുവർ ഷുവർ ഷുവർ ഏത് കോളേജിലാ പഠിക്കുന്നത് ഓക്കെ ഓക്കെ ആ സ്ഥലം പാലക്കാട് തന്നെയാണോ ഓക്കെ ഓക്കെ ആ അപ്പോ അത് തേർഡ് ഇയർ അല്ലേ ആ മാർക്ക് ഒക്കെ എങ്ങനെയുണ്ട് എസ്ജിപി ഒക്കെ ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ് ആ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇപ്പോൾ മിക്കവാറും ഞങ്ങൾക്ക് അടുത്ത വർഷം പ്രൊജക്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങള് ഇന്റേൺഷിപ് ചെയ്തോ എവിടെങ്കിലും ആ ഇവിടെ യൂഷ്യലി ഉള്ള ഇന്റേൺഷിപ്പിനും പ്രോജെക്റ്റിനും ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്റേൺഷിപ്പിനും അത് രണ്ടും ചെയ്യണമെങ്കിൽ നമ്മള് വെബ്സൈറ്റിൽ പോകുവ എന്നിട്ട് അതില് കരിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോ അതിൻ്റെ താഴെ വരും ഇന്റേൺഷിപ് പ്രൊജക്റ്റ് അങ്ങനെ വരും അപ്പോൾ അത് സെലക്ട് ചെയ്യാം അതിനകത്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അപ്ലിക്കേഷൻ ഫോമ് എല്ലാമുണ്ട് അതും ചെക്ക് ചെയ്യാട്ടോ ആ അതിനാത്ത് നമുക്ക് അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോമ് ഡൗൺലോഡ് ചെയ്യുക അത് ഫില്ല് ചെയ്യുക ഫോട്ടോ ഒക്കെ ഉണ്ട് അതൊക്കെ ഒട്ടിക്കുക എന്നിട്ട് പ്രിൻസിപ്പലിൻ്റെ സീൽ വാങ്ങിക്കണം അത് പോലെ കോളേജിന്ന് പ്രിൻസിപ്പള് സൈൻ ഉള്ള ഒരു ബൊണഫയ്ഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അത് ഞങ്ങളെ ട്യൂറ്റർ പറഞ്ഞ് തരും കോൺടാക്ട് ചെയ്താല് ആ മാർക്കിൻ്റെ ബേസ് ആണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഗ്രൂപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യാം സിംഗിൾ ഇൻഡിവിജ്വൽ തന്നെ വേണം എന്നില്ല പ്രൊജക്റ്റ് ആണെങ്കിൽ നാല് പേരുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ഇവിടെ റിക്രൂട്ട് ചെയ്യുന്നത് ഇന്റേൺഷിപ് ആണെങ്കില് അത്യാവശ്യം ഒരു ആറ് ഏഴ് പേർക്ക് വരാന്ന് തോന്നുണു എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല നിങ്ങൾ ഒന്ന് വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കൂ കേട്ടോ ഇന്റേൺഷിപിൻ്റെ കാര്യം എത്ര പേർക്കാണെന്ന് ആ പിന്നെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടല്ല് ആ പറ്റും പറ്റും നിങ്ങൾക്ക് മാർക്ക് അനുസരിച്ചിട്ട് നിങ്ങള് ഒരു ഗ്രൂപ്പ് ആയ മതി ഒരേ സിജിപിഎ ഏകദേശം ഒരേ റേഞ്ചുള്ള ആൾക്കാര് ഒര് നാല് പേരുള്ള ഗ്രൂപ്പ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങക്ക് കിട്ടും ഇവിടുന്ന് റിക്രൂട്ട് ചെയ്യുന്നേനനുസച്ച് നിങ്ങൾക്ക് അത് മെയില് വരും ഓക്കെ അപ്പോൾ നിങ്ങള് ഇന്റേൺഷിപ് ആണെങ്കില് ഇതുപോലെ ഗ്രൂപ്പ് ആകാം എന്നിട്ട് അപ്ലൈ ചെയ്യാം അങ്ങനെ അത് ആ എന്നാ ആദ്യം നിങ്ങളിപ്പോൾ തേർഡ് ഇയർ അല്ലേ ആയിട്ടുള്ളൂ അപ്പം ആദ്യം ഇന്റേൺഷിപ് ചെയ്തുള്ളൂ എന്നിട്ട് ഫൈനൽ ഇയർ പ്രൊജക്റ്റ് വേണങ്കില് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ സ്റ്റുഡന്റ് വരുന്നുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ അതില് സ്ലോട്ട് ഉണ്ട് അപ്പോൾ നിങ്ങക്ക് എപ്പഴാണോ ലീവ് അല്ലെങ്കില് സെം ബ്രേക്കൊക്കെ വരുന്ന സമയത്ത് ആ സ്ലോട്ട് അനുസരിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുട്ടോ അങ്ങനെ ആ ആ ആ വർക്ക് ചെയ്യുന്നത് മൂന്ന് വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നത് ആ ഞാന് നെഹ്റു കോളേജ് കോ കോയമ്പതൂര് നെഹ്റു കോളേജിലാണ് ആ ഞാനും എർണോട്ടിക്കല് പഠിച്ച് തന്നെയാ എത്തി എത്തിയത് അത് കഴിഞ്ഞ് ഇവിടെ ഐയെസ്റോയുടെ എക്സാം എഴുതിട്ടുണ്ടായിരുന്നു അങ്ങനെ എച്ആർ ഡിപ്പാർട്മെന്റിൽ കയറിയതാണ് അല്ലാ നിങ്ങള് ട്രൈ ചെയ്യൂ എന്നെ കൊണ്ടാവുന്ന ഹെല്പ്പെല്ലാം ചെയ്യാം നിങ്ങൾ എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി

ഓക്കെ ഷുവർ ഷുവർ ഞാൻ ഹെല്പ് ചെയ്യാം നിങ്ങള് വിളിച്ചാൽ മതിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കില് അറിയാനുള്ളത്